ഇന്ത്യയിലെ ഭക്ഷണം സ്വാഭാവികമായിട്ടും നല്ല ടേസ്റ്റുള്ള ഭക്ഷണം നല്ല രുചികരമായ ഭക്ഷണമാണ് ദൈനംദിന ജീവിതത്തിലുണ്ടാക്കുന്ന ഉപയോഗിക്കുന്ന ജനപ്രിയ വിഭവങ്ങളെന്നു പറയുന്നത് നമ്മുടെ നാട്ടിലെ ജനപ്രിയമായ വിഭവങ്ങൾ എന്നു പറയുന്നത് പൊറോട്ട പൊറോട്ടയാണെല്ലാവർക്കും ഒരുപാടിഷ്ടപ്പെടുന്നൊരു വിഭവമാണ് പൊറോട്ടയെന്നു പറയുന്ന് ഈ പൊറോട്ട പൊറോട്ടയുടെ കൂടെ സാമ്പാർ സാമ്പാറെന്നു പറയുമ്പോൾ നമുക്ക് പൊറോട്ട സാമ്പാറെന്നു പറയുന്നതാണേറ്റവും രുചികരമായ ഭക്ഷണം എന്നു പറയുന്നത് അപ്പോൾ അങ്ങനെ പിന്നെയുള്ളതെന്നു പറയുന്നത് ദോശ ദോശ ചമ്മന്തി ദോശ സാമ്പാർ പിന്നെയുള്ളതെന്നു പറയുന്നത് ഏറ്റവും രുചികരമായ നമ്മുടെ ദൈനംദിന ജീവിതത്തിലുണ്ടാക്കുന്ന ജനപ്രിയ വിഭവങ്ങൾ എന്നു പറയുന്നത് ഇഡലി സാമ്പാർ ഇഡലി ചമ്മന്തി അങ്ങനെയൊക്കെ ഉള്ള പിന്നെ അപ്പം സ്റ്റൂ കറിയ് പിന്നെ അപ്പം ചിക്കൻ കോഴിക്കറിയും അപ്പവും പിന്നെ ഇറച്ചിക്കറി ഇങ്ങനെയുള്ള വിഭവങ്ങളൊക്കെ നമുക്ക് ജനപ്രിയമായ വിഭവങ്ങൾ തന്നെയാണ് ഇത് മസാലകൾ എന്നു പറയുന്നത് ഈ ഇറച്ചിക്ക് ചേർക്കുന്ന മസാലകളുണ്ട് പിന്നെ ഈ കോഴിക്കറിക്ക് ചേർക്കുന്ന മസാലകൾ ഉണ്ട് പിന്നെ നമുക്കതല്ലാതെ ഈ സാമ്പാർ വെക്കാൻ വേണ്ടി ചേർക്കുന്ന മസാലകളുണ്ട് അങ്ങനെയുള്ള ജനപ്രിയ മസാലകളും ഈ ദൈനന്തിന ജീവിതത്തിൽ നമ്മളുപയോഗിക്കുന്നുണ്ട്